ഗ്രാമീണ സ് മേഖലയെന്നു പറയുമ്പം വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകൾ എന്നു വെച്ചാൽ അവർ കൃഷിപ്പണി കൃഷിക്കു വേണ്ടി മാത്രം ജീവിച്ചവരായിരുന്നു അവിടെ ഉള്ളവർ മാത്രം ജീവിച്ചിരുന്നത് എന്നാൽ എന്നാ ഇപ്പോഴത്തെ സർക്കാർ വന്നതോടെ സാധാരണക്കാർക്കും എല്ലാവ് സാധാരണക്കാർ കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകി ഇപ്പം ഉള്ള എല്ലാ കുട്ടികളും സ്കൂളുകളിൽ പോകുന്നുണ്ട് അവർക്ക് ഉച്ച ഭക്ഷണം ലഭിക്കുന്നുണ്ട് പല പല നല്ല കാര്യങ്ങളും സർക്കാരിപ്പം ചെയ്യുന്നുണ്ട് ഒത്തി പണ്ടത്തെ കാര്യം വെച്ചു നോക്കുമ്പം ഇപ്പോഴത്തെ എല്ലാ കുട്ടികളും തന്നെ പഠിക്കാനാണ് പോകുന്നത് ആരും തന്നെ കൃഷിയിലോട്ടിറങ്ങുന്നൊന്നുമില്ല കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവരും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട് പിന്നെ അത് അവർക്ക് ഒരു അവർക്ക് വിജയ ജീവിതത്തിൽ അവരെ അവരുടെ അപ്പനെ അമ്മേനെ പോലെ അവരുടെ അവർക്കും ഒരു ജീവിതം വേണമെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നാ പിന്നെ എന്താ പറയുക അവർ വളർന്ന് അവർക്ക് ഒരു ഉന്നത ന് സ്ഥലത്തെത്തണമെന്ന് അവരോർക്കുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസം പിന്നെ അതുപോലെ തന്നെ ഗ്രാമീണ മേഖലേ വിദ്യാഭ്യാസ സമ്പ്രദായമെന്നു പറയുമ്പം മെച്ചപ്പെടുത്ത സർക്കാരിൽ നിന്ന് ചെയ്തിട്ടോയെന്നു ചോദിക്കുമ്പം പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇപ്പം പാഠപുസ്തകങ്ങളില്ലാത്ത കുട്ടികൾക്ക് ഒത്തിരി ആളുകളുണ്ട് അവർക്കെല്ലാം ഗ്രാമീണ സ്ഥലത്തേക്ക് എന്നാ എന്നാ പുസ്തകങ്ങളെത്തിക്കുകയും അവർക്ക് പുസ്തകങ്ങൾ കൊടുക്കുകയും അവർക്ക് പഠിക്കാനുള്ള എല്ലാ ഉപകരണങ്ങളും കൊടുക്കാറുണ്ട് എന്നു വെച്ചാൽ ബാഗ് പുസ്തകങ്ങൾ ച് പാത്രങ്ങൾ അവർക്ക് പഠിക്കാനുള്ള എല്ലാ ആവശ്യ സാധനങ്ങളും സർക്കാർ ഇപ്പം മെച്ചപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെ പോലെ അതു പോലെ തന്നെ അവർക്ക് ഇപ്പം അവിടെ നിന്ന് വണ്ടിയൊന്നില്ലെങ്കിലും അവർക്ക് വഴി വെട്ടി സ്കൂളിലേക്കു വരാന് ഉള്ള ഒരു ചെറിയ വഴിയെങ്കിലും സർക്കാർ ഉപയോഗിച്ച് പെടുത്തി കൊടുത്തു അതുപോലെ തന്നെ പിന്നെ സർക്കാർ ചെയ്ത ഒരു കാര്യമെന്ന് പറയുമ്പം കുട്ടികൾക്ക് സാദാ എല്ലാ കുട്ടികളും എന്നു വെച്ചാൽ താഴ്ന്ന ജാതി എന്നൊന്നും ഇല്ല എല്ലാം ജാതിയിൽ പെട്ട കുട്ടികൾക്കും സ്കൂളിൽ വരികയും അവർക്ക് ഉയർന്നു നിൽക്കാനുള്ള ഉന്നൂക്കം നല്കുകയും ചെയ്യുന്നുണ്ട് സർക്കാർ